ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് ലക്ഷത്തി എണ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് ഒമ്പത് ലക്ഷത്തി എണ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്